ചെടികൾ വളർത്താൻ ഏതുതരത്തിലെ മണ്ണും ഉപയോഗിക്കാം ചെല മണ്ണുകൾക്ക് കൂടുതൽ വളം കൂടുതൽ ഫലഭൂയിഷ്ടിയുള്ള മണ്ണുകളായിരിക്കും ചിലത് നോർമൽ മണ്ണുകൾ നോർമൽ വലിയ ഇതില്ലാത്ത മണ്ണായിരിക്കും കുറച്ച് കറുപ്പ് കൂടിയ മണ്ണാണ് ചെടികൾ വളർത്താൻ ഏറ്റവും അനിയോജ്യമായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ചെടികൾ നടുമ്പം ചാണകപ്പൊടി മറ്റു വളങ്ങളൊക്കെ ചേർത്ത് മണ്ണിൽ അതൊക്കെ ചേർത്ത് നടുമ്പം ചെടികൾക്ക് വളരാൻ കൂടുതൽ സഹായകമാകും അവർക്കുവേണ്ട ന്യൂട്രിയൻ്റ്സും കാര്യങ്ങളൊക്കെ വളങ്ങളിൽ അടങ്ങിയിട്ടുണ്ടാവും അപ്പം അതൊക്കെ വളങ്ങൾ ഇട്ടുകൊടുക്കുമ്പം ചെടികൾക്ക് കൂടുതലും വളരാനും കൂടുതൽ ഫലം തരാനും പൂക്കളും ഫലങ്ങളുമൊക്കെ തരാനും ഉപകാരം ആയിരിക്കും